കോവിഡ് കലത്ത് സത്യം പറഞ്ഞാൽ മൊബൈല് ഒരുപാട് ഉപകാരമായിരുന്നു കുട്ടികളുടെ പഠനത്തിലതിന് വളരെ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു കാരണം ഞാൻ തന്നെ കുട്ടികൾക്ക് കുറച്ച് ക്ലാസ്സക്കെടുക്കാനന്ന് കോവിഡ് കാലത്ത് കുട്ടികൾ അലക്ഷ്യരായിട്ട് ഇരിക്കണ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളക്കെ വിളിച്ചിരുത്തി അവരെ പഠിപ്പിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഉള്ള സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾക്കക്കെ മൊബൈൽ കിട്ടി അപ്പം മൊബൈലിൽ ഓൺലൈൻ വഴിയവർക്ക് ക്ലാസ്സൊക്കെ അവർക്കുണ്ടായിരുന്നു അത് ആ കാലഘട്ടങ്ങളിൽ വളരെ അത്യാവശ്യമായിരുന്നു അത് നല്ലൊരു കാര്യവായിരുന്നു പക്ഷേ അത് കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ വളരെ സഹായിച്ചെങ്കിലും തുടർന്ന് വന്ന കാര്യങ്ങളതിന്റെ ഗുണങ്ങൾ തന്നേണ് പഠിക്കാണ കാലഘട്ടത്തിൽ കുട്ടികൾക്കുപകരമായിരുന്നു പിന്നെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ദോഷങ്ങൾ ഇപ്പം സംഭവിച്ച് കൊണ്ടിരിക്കുന്നു കാരണം നമ്മളൊരു ഗുണത്തിന് വേണ്ടി ചെയ്തൊരു കാര്യം ഇന്ന് തലമുറകളത് ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് നമുക്ക് നമസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പം കുട്ടികൾ മെയ്നായിട്ട് കാണുന്നത് മറ്റേ കളികളിൽ നിന്ന് വളരെ പുറകിലോട്ടായിരിക്കുന്നു ചെറിയ കു കുഞ്ഞ് കുട്ടികൾ മുതൽ ഏകദേശം ഒരു പത്ത് പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾ തന്നെ പതിനാറ് പതിനേഴ് ഇരുപത് വയസ്സുള്ള കുട്ടികൾ ഈ മൊബൈലിൻ്റെ അടിമകളെപ്പോലെ അപ്പം ഞാൻ ഒക്കെ ഒന്ന് രണ്ട് കുട്ടികളെ കാണാനിടയായി അതൊരു പതിനെട്ട് ഇരുപത് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികൾക്ക് മൊബൈല് മാറ്റി വാക്കാൻ പറ്റുന്നില്ല മൊബൈൽ മാറ്റി വക്കുമ്പോൾ അവർക്ക് പിന്നെ എന്തോ അസ്വസ്ഥത അലറി വിളിക്കുക എപ്പോഴും മൊബൈല് കയ്യിൽ വേണം മൊബൈല് മാറ്റുമ്പോൾ അവരുടെ കൈയിങ്ങനെ വിറക്കുക അതുപോലെ മൊബൈലില്ലാതെ കിടക്കാനോ ഇരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥേലവരുടെ ഓരോ വീട്ടിലെ സഹോദരനും സഹോദരീം രണ്ട് പേരും ഒരുപോലെ തകർന്നിരിക്കുന്ന അനുഭവങ്ങൾ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികളെ വിവിധ കളികളിൽ നിന്നും ഒക്കെ അവരെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സം സംവിധാനമായി മാറി മൊബൈല് അപ്പം കോവിഡ് കാലത്തത് വളരെ ഉപകാരം ചെയ്തിരുന്നെങ്കിലും ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പം കോവിഡൊക്കെ മാറി പഠനം തുടങ്ങിയപ്പോഴും മൊബൈല് മാറ്റാൻ പലർക്കും കഴിയുന്നില്ല അതിൻ്റെ ദൂഷ്യഫലങ്ങളൊരുപാട് ഇന്നത്തെ ഒരുപാടൊരുപാട് കാര്യങ്ങളതിലെ കുട്ടികൾ ദേഷ്യം കൂടുതലാണ് അലസരാണ് പഠിക്കുവാൻ ആരും പഠിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ആരോടും സ്നേഹമില്ല സഹകരണ മനോഭാവങ്ങളില്ല അതുപോലെ തന്നെ കുട്ടികൾ മറ്റുള്ളവരെ പണ്ടുള്ള ആൾക്കാരെ പലപ്പോഴും സഹായിക്കാനൊരു മനസ്സുണ്ടായിരുന്നു അങ്ങനെ പരസ്പ്പര സഹായങ്ങളൊക്കെ ഓക്കെ കുട്ടികളുടെ ഭാഗത്ത്ന്നില്ല ബഹുമാനമില്ല ആരോടും ഇപ്പോഴാരോടും സമൂഹത്തോടാകട്ടെ ഒരു കുടുംബത്തോടാകട്ടെ അല്ലെങ്കിലരോടൊരാത്മാർഥത ഇല്ലാത്ത നിലയിൽ കുട്ടികളെത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ നമ്മൾ മനസ്സിലാക്കണ്ടൊരു കാര്യമാണ് അതാണിതിന്റൊരു ഒരു ദോഷം എന്ന് എന്ന് പറയുന്നത് ഏറ്റോം വലിയ ദോഷമെന്ന് പറയുന്നത് സഹകരണ മനോഭാവം കുട്ടികളിൽ നിന്നൊരുപാട് മാറി ബഹുമാനം മാറി കുട്ടികൾ ശരിക്കും അലസരും മടിയന്മാരുമായി തീർന്നിരിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള പലപ്പോഴും ഉള്ള ചിന്തകൾ ഒന്നും അവർക്കില്ല എന്ന് തോന്നുന്ന തരത്തിലോട്ടവരെ മാറ്റി മറിച്ചോണ്ടിരിക്കാണീ ഈ മൊബൈൽ ഇതെക്കെയാണതിൻ്റെ ദോഷങ്ങൾ